കായികരംഗത്ത് വിജയവും അതുപോലെ തന്നെ പരാജയവും ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും കായികരംഗത്ത് വിജയം മാത്രമല്ല പ്രധാനപ്പെട്ടത് പരാജയത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ആ പഠിക്കുന്ന പാഠങ്ങൾ വെച്ച് നമുക്ക് അടുത്ത മത്സരം ജയിക്കാനുള്ള ഊർജ്ജവും ഉന്മേഷവും ലഭിക്കുന്നു ഇന്ന് ഒരാൾ പരാജയപ്പെട്ടങ്കിൽ നാളെ അത് അയാളെക്കൊണ്ട് വിജയിപ്പിക്കാനുള്ള ഒരു ഊർജ്ജം അയാൾക്ക് നൽകുന്നു അതുപോലെ തന്നെ വിജയവും പ്രധാനപ്പെട്ടതാണ് എന്നാൽ വിജയിക്കുന്നവൻ്റെ കൂടെ മാത്രമായിരിക്കില്ല എല്ലാവരും പരാജയപ്പെടുന്നവൻ്റെ കൂടെയുമായിരിക്കും വിജയത്തേക്കാൾ മികച്ചതാണ് പരാജയം എന്നല്ല പറയുന്നത് വിജയവും പരാജയവും സമാസമമാണ് ഇന്ന് വിജയിക്കുന്നവൻ നാളെ പരാജയപ്പെടാം അത് അവനെ പിന്നൊരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഊർജ്ജം അവന് നൽകുന്നു അത് ഒരു ഒരു ഇതെടുത്ത് നോക്കിയാൽ വീരാട് കോഹ്ലിയുടെ കാര്യം തന്നെ നോക്കാം വിജയം മാത്രം കണ്ട് വരുന്ന വീരാട് കോഹ്ലി ഒരു മൂന്ന് വർഷം പരാജയം മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിൽ അല്ലേ ക്രിക്കറ്റ് ലോകത്ത് തനിക്ക് മികച്ച ഒന്ന് സമ്മാനിക്കാൻ കഴിയാതെ രണ്ട് മൂന്ന് വർഷം അദ്ദേഹം താഴ്ന്നിരുന്നു എന്നിട്ട് ഇപ്പോൾ തിരിച്ച് വരുകയാണ് ചെയ്തത് കാരണം തൻ്റെ പരാജയത്തിൽ നിന്നും അദ്ദേഹം പല പാഠങ്ങളും പഠിച്ച് തൻ്റെ അടുത്ത വിജയത്തിലേക്ക് വരികയാണ് ചെയ്തത് അതുപോലെ തന്നെ പലരുമുണ്ട് പല പല ആളുകളുമുണ്ട് തൻ്റെ പരാജയത്തിൽ നിന്നും പല പാഠങ്ങളും പഠിച്ച് വിജയത്തിലെത്തിയവർ അതുകൊണ്ട് തന്നെ കായികരംഗത്ത് വിജയവും പരാജയവും രണ്ടും സമാസമമാണ്